ഹലോ ലിൻറ്റാസ് റെസ്റ്റോറന്റ് അല്ലേ ഞാൻ ഇവിടെ അടുത്തൊരു പ്ലേസിൽ തന്നെയാണേ വിളിക്കുന്നത് രാവിലെ ഞാൻ ഫുഡിന് ഓർഡർ ചെയ്തായിരുന്നു പിന്നെ നല്ല എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ജോലി തിരക്ക് കാരണം വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല അപ്പ ഫുഡിന് ഓർഡർ ചെയ്തിരുന്നു രാവിലത്തെ ബ്രേക്ഫാസ്റ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഓർഡർ ചെയ്തിരുന്നത് ഞാൻ പിന്നെ ചപ്പാത്തിയും ചില്ലി ചിക്കനുമാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടുമ്പോൾ ടൈമും ലേറ്റ് ആയി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കിട്ടുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിച്ചാൽ ശരിയാവില്ലല്ലോ അപ്പം ഒരു മണിയായി എത്താനും ഒരു മണിയായി ഫുഡ് കിട്ടാൻ ഒരു മണി ആവുകയും ചെയ്തു പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത ഫുഡും അല്ല എനിക്ക് കിട്ടിയത് രണ്ട് ബിരിയാണി ആണ് എനിക്ക് കിട്ടിയത് ബിരിയാണി എനിക്ക് അത്ര ഇഷ്ട്ടമല്ല ഞാൻ പൊതുവെ കഴിക്കാറ് ഒരു ചപ്പാത്തി ചപ്പാത്തി ചിക്കൻ കറി ചപ്പാത്തി ചില്ലി ചിക്കൻ ഒക്കെയാണ് കഴിക്കാറ് ബിരിയാണി അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ സാധനത്തിൽ ഒട്ടും തന്നെ ഞാൻ തൃപ്തികരമല്ല പിന്നെ എന്താണ് പറയുക ചപ്പാത്തി കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഓർഡർ ചെയ്തതാണ് പക്ഷേ കിട്ടിയിരിക്കുന്നത് ബിരിയാണിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഇവിടെ തിരിച്ചയയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടോ റിട്ടേൺ ചെയ്യാൻ പറ്റില്ലേ ഞാൻ ഓർഡർ ചെയ്ത സാധനം അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് അതാണ് പറയാനുള്ളത് അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്